വികസനത്തിൻറ്റെയും വളർച്ചയുടെയും ഒക്കെ കാര്യത്തില് കോഴിക്കോട് ജില്ല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ സ അതായത് വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസന വളർച്ചയുടെ കാര്യത്തിലൊക്കേ കോഴിക്കോട് ജില്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് അതായത് ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും രാഷ്ട്രീയ പരമായിട്ടാണെങ്കിലും പിന്നേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ എന്നാലും പല പ്രശ്നങ്ങൾ ഉണ്ട് അതായത് നമുക്ക് പിന്നേ നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയെ അതായത് നല്ലൊരു രീതിയില് മുന്നിൽ കൊണ്ട് വരാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അതായത് മലിനീകരണം അതായത് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കോള് അതായത് പുഴകളിലും അതിലൊക്കേ നന്നങ്ങു ഒഴുകുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും മലിനമായിട്ടുള്ള വെള്ളമാണ് ശെരിക്കും പറഞ്ഞാൽ അത് ഒഴിവാക്കുക പിന്നേന്ന് വെച്ചിട്ടുണ്ടേൽ ഈ ഫാക്ടറിയിൽ നിന്നുള്ള പുക അങ്ങനത്തേ കാര്യങ്ങളൊക്കേ ഒഴിവാക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടേൽ പരിസ്ഥിതിയൊക്കെ മലിനമായിട്ട് പോകും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇല്ലാതാകുന്നത് ജൈവ വൈവിധ്യം അതായത് ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല ഫുൾ രാസവളങ്ങളാണ് അതൊക്കേ പ്രകൃതിക്ക് നാശമാണ് അങ്ങനത്തേ കാര്യങ്ങളൊക്കേ മെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നേ നമുക്ക് ജില്ലയിൽ നല്ല ജില്ലേനേ നല്ലൊരു രീതിയിൽ നമുക്ക് വളർത്താം നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർക്ക് തന്നെ കഴിയും